അ അലോ ആ ഈ

ആ വണ്ടി വണ്ടി എവിടെ നിർത്തും സ്റ്റോപ്പ് ചെയ്യും എന്താണ് നിങ്ങളുടെ ലൈസൻസ് എടുക്കു ലൈസൻസ്സ് നോക്കട്ടെ അ അ അ ലൈസ് ഇതെന്താ ഇത്രയും കാലമായിട്ട് പുതുക്കാഞ്ഞത് ഇത്ര ഇത്ര ഇത്രയും വർഷം ഇത് പുതുക്കാതെ ഈ ഈ ഓട്ടോ ഓടിക്കുന്നത് ശെരിയുള്ള കാര്യമല്ലല്ലോ അത് ശരിയുള്ള കാര്യമല്ലല്ലോ ഇത് പുതുക്കൽ നിങ്ങൾ ഇത്രയും വർഷമായിട്ട് പത്ത് വർഷത് പത്ത് വർഷത്തിന് മീതെ ഇപ്പം നിങ്ങൾ വണ്ടി ഓട്ടോ ഓടിക്കല് തുടങ്ങിയിട്ട് പക്ഷേ ഇതിപ്പോൾ വണ്ടി വണ്ടീൻ്റെ എല്ലാ എല്ലാ ഒക്കെ തെറ്റി കിടക്കുകയാണ് ഇൻഷൂറ് കാര്യങ്ങള് അതുപോലെ തന്നെ ആർ സി ഒ എല്ലാം തെറ്റി കിടക്കുകയാണല്ലോ ലൈസൻസാണെങ്കില് നിങ്ങള് പുതുക്കിയിട്ടില്ല നിങ്ങള് നിങ്ങളിപ്പം ഒരാളോട് മാത്രം ഇപ്പോൾ എങ്ങനെ ഒരു വിട്ടു വീഴ്ച ചെയ്യാൻ പറ്റില്ലല്ലൊ അതിപ്പോൾ ഇതിപ്പോൾ എന്താ ഇതുവായിട്ട് ബന്ധപ്പെട്ടല്ലെ ട്രാഫിക്കുവായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് മാത്രം ഇപ്പോൾ അങ്ങനെ ഒരിളവ് തരാൻ പറ്റില്ലല്ലൊ ഇതില് ഇതിലിപ്പം നിങ്ങൾ ഒറ്റത്തവണയായാലും രണ്ട് തവണയായാലും ഇത് നിങ്ങൾക്ക് കാര്യമല്ല നടപടിയാവുന്ന കാര്യമല്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പുതുക്കിയിട്ടില്ല ലൈസൻസ് പുതുക്കിയിട്ടില്ല ആർ സി പുതുക്കിയിട്ടില്ല ഫുള്ള് വണ്ടീൻ്റെ ഇൻഷുറ് കാര്യങ്ങള് ഇത്രയും ആളുകളെ നിങ്ങൾ കയറ്റിയത് ഓട്ടയും ഓടിക്കുന്നുണ്ട് ഇത് പുതുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളിത് പുതു പുതുക്കാതെ ഇതിങ്ങനെ ആളുകളേ കയറ്റി നിങ്ങൾ ഇത്രയും ഇതായിട്ട് ഓടിച്ചുകൊണ്ട് കെയർലെസ് ആയിട്ടോടിച്ചോണ്ടിരിക്കുക വണ്ടി ഇങ്ങനെ അത് ഇത് നടവ് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങള് ചെയ്യുന്നത്

ഉം ഉം ഏതായലും നോക്കട്ടെ നിങ്ങൾ നോക്കട്ടെ ഉം ഒ ആ